എൻ്റെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ആ കേരളത്തിലെ ഏകദേശം മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം ജനസംഖ്യയാണ് ഉള്ളത് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഇന്ത്യയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേരള സംസ്ഥാനം ഇനി ഇവിടുത്തെ ഭാഷ മലയാളമാണ് പതിനാല് ജില്ലകളാണ് കേരള സംസ്ഥാനത്ത് ഇന്ന് ഉള്ളത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗെവൺമെൻ്റാണ് കേരളം ഭരിക്കുന്നത് പിന്നിവിടെ ഒരു മിത ശീതോഷ്ണ സംസ്ഥാനമായാണ് കേരളം പൊതുവെ അറിയപ്പെടുന്നത് കേരള സംസ്ഥാനത്തോട് അതിര് പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാട് ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളത്തിൻ്റെ തെക്കെ കേരളം ഇന്ത്യയുടെ തെക്കെ അറ്റത്ത് കിടക്കുന്നതിനാൽ തെക്കെ അറ്റത്തേക്ക് അറബിക്കടലാണ് അറബിക്കടലിന് ആവോ അപ്പോൾ ആ കടൽനക്കരെയായി ശ്രീലങ്ക ആ രാജ്യമാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കേരളത്തിൽ ലോകത്ത് പ്രധാനപ്പെട്ട ഓ ഓ ഓ ഓ പ്രധാനപ്പെട്ടതായി അറിയപ്പെടുന്ന മതങ്ങൾ എല്ലാം കേരളത്തിൽ ഉണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആണതിൽ ഭൂരിപക്ഷം

ഇവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗെവൺമെൻ്റാണ് കേരള സംസ്ഥാനം ഇന്ന് ഭരിച്ച് കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊള്ളുന്നത് മലയാളമാണ് കേരളത്തിലെ സംസാര ഭാഷ ഇവിടെ പ്രവർത്തിച്ച് വരുന്ന വിവിധ മതങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് നിലനിൽക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെ ജാതികളും ഉപജാതികളുമായി ധാരാളം വ്യത്യസ്ഥത പുലർത്തുന്ന ആചാരങ്ങളോട് കൂടിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത്പോല തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഇടയിൽ തന്നെ ഏതാണ്ട് നാലോ അഞ്ചോ തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു വിവിധ വിവിധ തരം ആചാരങ്ങൾ പുലർത്തി വരുന്ന ജനവിഭാഗങ്ങളാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത് കേരള ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്നത് ഹിന്ദു സമുദായ അതിൽ പെട്ട അംഗങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് മുസ്ലിം സമുദായം മൂന്നാം സ്ഥാനത്ത് ക്രിസ്ത്യൻ സമുദായമാണ് കേരളത്തിൽ ഇന്നുള്ളത് പിന്നെ വളരെ അപൂർവമായി വളരെ അംഗ സംഖ്യ വളരെ കുറവാണ് എങ്കിലും ബുദ്ധ ജൈന ആ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ പെട്ട കുറെ ആളുകളും കേരളത്തിൽ വസിക്കുന്നുണ്ട് കേരളം പൊതുവെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം വളരെ മുന്നേക്കം മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് അത്പോലെ മെഡിക്കൽ ചികിത്സാ രംഗത്തും കേരളം വളരെ പുരോഗതി കൈവരിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജനസംഖ്യാനുപാതികായി നോക്കുക ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠനം നടത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ നിന്ന് പോയ ആളുകളാണ് ഏകദേശം മൂന്ന് കോടി അറുപത് ലക്ഷം ജനസംഖ്യ ഉള്ളതിൽ മുപ്പത് ലക്ഷത്തോളം പ്രവാസികൾ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഉള്ളതായിട്ടാണ് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ച് കാണുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ മലയാളികൾ അയക്കുന്ന പണവും മറ്റും ആണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പ്രധാനമായും പിടിച്ച് നിർത്തുന്നത് കേരളത്തിൻ്റെ ക്രമസമാധാന പാലന മേഖല ഇന്ത്യയിൽ ഏറ്റോം മികച്ച ഒന്നായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത്പോലെ ആർട്സ് കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളിൽ മലയാളികളായ ജനങ്ങൾ വളരെ ഉയർന്ന നിലയിൽ നിലവാരം പുലർത്തുന്ന ആളുകളായി ആയാണ് പൊതുവെ അറിയപ്പെടുന്നത് ഏകദേശം അത്രയും അത് മതി ആ ആ ആ